ചേട്ടാ നമസ്കാരം ഞാൻ രണ്ടാഴ്ച മുൻപൊരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ട്രാവലറേ അപ്പോൾ നിങ്ങളുടെ ക്യാബ് സർവീസിൽ നിന്ന് അപ്പോൾ അവിടെ അവർ ഡ്രൈവറുടെ നമ്പറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു രാവിലെ ആറ് മണി ആകുമ്പോഴേക്കും എത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ഡ്രൈവറുടെ നമ്പറൊക്കെ തന്നു ഞാനിതാ ഇപ്പോൾ ആറ് മണി തൊട്ടു വിളിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പം സമയം പത്തേ കാലുമായി നിങ്ങളെന്താണു ഉദ്ദേശിച്ചതെന്നു മനസ്സിലായില്ല മൂപ്പരെ വിളിച്ചിട്ട് ഇപ്പോൾ ആദ്യം കുറേ പ്രാവശ്യം വിളിച്ചപ്പോൾ ഔട്ട് ഓഫ് കവറേജായിരുന്നു പിന്നെ റിങ്ങടിക്കുന്നുണ്ട് എന്നിട്ട് ആൾ ഫോൺ ഒന്നും എടുക്കുന്നില്ല സമയം പത്തു മണി ആയി ഇനി എപ്പോൾ ഇവിടുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമ്മളെപ്പോൾ ആ ടെസ്റ്റിനേഷൻ എത്താനാണ് ആ നിങ്ങളൊന്നു വിളിച്ചിട്ട് ആളെ എന്താണ് ഉദ്ദേശം അല്ലെങ്കിൽ ആൾ വരുമോ ഇല്ലയോ എന്നൊന്നു പറയണം ഇല്ലെങ്കിൽ നിങ്ങൾ അഡ്വാൻസ് തന്ന ക്യാഷ് വെച്ചിട്ട് നിങ്ങൾ വേറൊരു വണ്ടി അറേഞ്ച് ചെയ്തു തരൂ എൻ എന്തെങ്കിലുമൊക്കെ ഒന്നു ചെയ്തു തരണം സമയം ഒന്ന് ഒരുപാട് ലേറ്റായി ഞങ്ങളൊക്കിവിടെ കുട്ടികളെല്ലാവരും വെയ്റ്റ് ചെയ്തു കൊണ്ടിരിക്കുകയാണ്